ഞാൻ ഇന്നലെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതെ അതെ അതേ ഇന്നലെ ഒരു ഉച്ചയായപ്പോൾ വിളിച്ചിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അല്ല അല്ല മോശമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് അല്ല അല്ല അല്ല നിങ്ങടെ നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഓ മോശമായിട്ട് അല്ല അല്ല അങ്ങനെ അല്ല ഒരു നല്ലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു നിങ്ങളുടെ ഡ്രൈവർ അവിടെ ഉണ്ടോ ആ ഉണ്ടല്ലേ ഓക്കേ ഓക്കേ പുള്ളി നല്ല രീതിയിൽ ഉള്ളൊരു സഹായവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പുള്ളി നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തത് വലിയ സ്പീഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പുള്ളി നല്ല രീതിയിൽ അവിടെ നമ്മളെ സേഫായിട്ട് എത്തിച്ചു പിന്നെ എൻ്റെ എൻ്റെ കൂടെ അമ്മുമ്മയും അമ്മുമ്മയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അമ്മക്ക് കാലിന് ചെറിയ വേദന കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ആ അപ്പോൾ അത് അമ്മുമ്മ എന്ത് ചെയ്ത് അമ്മുമ്മ ക്ക് ഇറങ്ങാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഡ്രൈവറാണ് അമ്മുമ്മേനെ പിടിച്ച് അവിടെ കൊണ്ട് വന്ന് അവിടെ വീട്ടിൽ കയറ്റി കിടത്തി അത് കഴിഞ്ഞിട്ട് ഇവർ ഫുഡ് കഴിച്ച് കഴിയുന്നതു വരെ വെയിറ്റ് ചെയ്തു അതു കഴിഞ്ഞ് അമ്മുമ്മേനെ എടുത്തു കൊണ്ട് അമ്മുമ്മേനെ ഒറ്റക്കാണ് പുള്ളി എടുത്തു കൊണ്ട് വണ്ടി കയറ്റി തിരിച്ച് റിട്ടേൺ കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു കാര്യമാണ് പുള്ളി ചെയ്തത് അപ്പം എനിക്ക് ആ ഡ്രൈവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉള്ളൊരു ഡ്രൈവറാണ് എന്തായാലും നിങ്ങൾ അതിന് എന്താ പറയുക നല്ലൊരു അഭിനന്ദനം നേരിടുന്നുണ്ട് കാരണം പുള്ളിക്ക് ഞാൻ എക്സ്ട്രാ പേയ്മെൻറ്റ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് പക്ഷെ പുള്ളി അത് വാങ്ങിയില്ല പുള്ളി പറഞ്ഞു നമ്മൾ ഏജൻസി ആയിട്ടാണ് ഇത് വരുന്നത് പക്ഷെ പുള്ളി ഞാൻ അത് വാങ്ങില്ല എന്ന് അടക്കം പറഞ്ഞു അപ്പോൾ എനിക്ക് പുള്ളിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നൂറ് നാവാണ് കാരണം നല്ലൊരു മനുഷ്യനാണ് എന്തായാലും അത് ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഓക്കേ ഓക്കേ ഓക്കേ പുള്ളിനോട് ഒന്ന് പറഞ്ഞേക്ക് കേട്ടോ ഓക്കേ